ഹലോ സാറ് എൻ്റെ പേർ അനു ഞാൻ വിളിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിലൊരു മിസ്റ്റേക്ക് വന്നതു കൊണ്ടാണതപ്പോൾ അത് തിരുത്താനായിട്ട് എന്തൊക്കെ നടപടികളാണ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നറിയുന്നതിനു വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിൻ്റകത്ത് വന്നിരിക്കുന്ന മിസ്റ്റേക്കെന്നു പറയുന്നത് കൊച്ചിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുണ്ടായി അപ്പം അതു തിരുത്തി അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നാണ് ഓഫീസിൽ വരേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് അപ്പോൾ കൊച്ചിൻ്റെ ആ ഒരു പേര് മാത്രമായിരുന്നു തിരുത്താനായിട്ടുണ്ടായിരുന്നത് ആ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്നെന്ന് അതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്ന് അറിയിക്കുമോ എപ്പോഴത്തേക്കാണ് അവിടെ എത്താൻ പറ്റുകയെന്നും ഒന്നു പറയാൻ പറ്റുമോ ആ ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ വെച്ചിട്ടതെത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുകയെന്നുള്ള വിവരം കൂടിയൊന്നറിയിക്കുമോ ജനന സർട്ടിഫിക്കറ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഈ പേര് എഴുതിയിരിക്കുന്നതിൻ്റകത്തു മാത്രമാണ് ചെറിയ പിശക് വന്നിട്ടുള്ളതതിൻ്റകത്ത് സപെല്ലിംഗ് മിസ്റ്റേക്കാണ് ആ അങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നു വെച്ച് നമ്മളീ സർട്ടിഫിക്കറ്റ് പല റെക്കോഡുകളിലും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പം അതൊരു അതൊന്ന് തിരുത്തി തരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതാണെങ്കിൽ അറിയിക്കാനായിട്ട് നിങ്ങളെ വിളിച്ചത് അപ്പോൾ ആ ഇതിന് ഏഹ് വേറെ എന്താ ചെയ്യാനായിട്ട് പറ്റുക വേറെ എവിടെയെങ്കിലും യാ വേറെ എന്തെങ്കിലും വേറെന്താ ഇതിനു വേണ്ടിയിട്ട് ഇത് വേറെ എന്തെങ്കിലും ഡോക്കുമെൻ്റ് വേണോ ഇത് ചെയ്യുന്നതിനത്ര ഫീസാകും ആ നമ്മൾ ഇത് ഓൾറെഡി ചെയ്യുന്നതിന് ഫീസടച്ചായിരുന്നു അപ്പം എക്സ്ട്രാ ഫീസ് വേണ്ടി വരുമോ അതിൻ്റെ കാര്യങ്ങളൊക്കെയൊന്ന് പറഞ്ഞു തരുമോ ആ നമുക്കിതിനെ പറ്റി വലിയ ഡീറ്റേലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ലാത്തതു കൊണ്ടാണ് ആദ്യമായിട്ടാണിങ്ങനൊരു റെക്കോഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വെക്കുന്നത് അതു നമുക്ക് തെറ്റ് തിരുത്താനൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ പുറകെയൊന്നും നടക്കേണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും എത്ര ദിവസം എന്തെങ്കിലും എന്തെങ്കിലൊരു നടപടി ഇതിനുണ്ടാകുമോ ഒത്തിരി ദിവസത്തെ താമസമൊന്നും ഇല്ലാതെത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടുമോ എന്താണ് മാം ഇതിനെ പറ്റി ഒരു വിവരം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ പിന്നേ ആ വേറെ തിരുത്തലുകളൊന്നും വേണ്ട ഏകദേശം ഓൾമോസ്റ്റെല്ലാം തന്നെ ശരിയായിട്ടാണിരിക്കുന്ന പേരിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കായിരുന്നു ഇതിൻറ്റകത്തേറ്റവും തെറ്റായിട്ടുള്ള കാര്യം അതാദ്യം തന്നെ എഴുതിയിരിക്കുന്നതിപ്പോൾ കൊച്ചിൻ്റെ പേര് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ തന്നെ അതു വേറെ പേരാണല്ലോ ആകുന്നത് അപ്പോൾ അതു കൊണ്ട് അത് കുട്ടിയുടെ ഫ്യൂച്ചറിനെയൊക്കെ ഒരുപാട് ബാധിക്കുമല്ലോ അതു കൊണ്ടായിരുന്നു ആ ഇതെത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരുമായിരുന്നെങ്കിൽ ഫീസെത്രയായാലും കുഴപ്പം ഇല്ല എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി തരുമായിരുന്നെങ്കിൽ അത്രയും ഉപകാരമായിരുന്നു അപ്പം ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാമിനെ ബന്ധപ്പെട്ടത്